ആ ഹലോ ഫുഡ് ഓർഡർ എടുക്കാൻ വിളിച്ചാരുയിന്നോ ദേവീപുരം റസ്റ്റോറൻറ്റിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഡിഷ് ഇറ്റാലിയൻ ഉണ്ട് ചൈനീസ് ഉണ്ട് അതുപോലെ സ്പാനിഷ് ഡിഷസും ഉണ്ട് അതിൽ സ്പാനിഷിന് നമുക്ക് ഇച്ചിരി ഡിലെ ഉണ്ടായിരിക്കും ഇറ്റലിയനും ചൈനീസും പെട്ടെന്ന് എടുക്കാം അതുപിന്നെ കേരള സ്പെഷ്യൽസും ഉണ്ട് ആ ഓക്കെ ഓക്കെ നമുക്ക് കേരളത്തിൻ്റെ കേരള സ്പെഷ്യൽ ചിക്കൻ ചിക്കൻ മുളകിട്ടരച്ചത് ചിക്കൻ തേങ്ങ ഇട്ട് അരച്ചത് എന്നും പറഞ്ഞ രണ്ട് ഐറ്റംസ് ഉണ്ട് പിന്നെ ഷെഫ് പിള്ളെ സ്പെഷ്യൽ ഫിഷ് നിർവാനയുണ്ട് അത് മീൻകറിക്കകത്ത് തേങ്ങാപാലൊക്കെ ഇട്ട് പൊരിച്ച് ഒരു സൂപ്പ് തിളപ്പിച്ച സൂപ്പർ ഒരു ഡിഷ് ആണ് ഇന്നത്തെ ഏറ്റവും കൂടുതൽ ഇന്നത്തെ സ്പെഷ്യൽ ആണ് ഇന്ന് ഏറ്റവും കൂടുതൽ ചെലവായൊരു ഡിഷും ഇതുതന്നെയാണ് അതിൻ്റെ കൂടെ നമുക്ക് നൂലപ്പം ഉണ്ട് പൊറോട്ട ഉണ്ട് ചപ്പാത്തി ഉണ്ട് നൂലപ്പം നൂലപ്പവും കൂടെ ഫിഷ് നിർവാന എടുക്കാം ഓക്കെ അതുപോലെത്തന്നെ ഇന്ന് ഇന്നത്തെ വേറെ സ്പെഷ്യൽ ആണ് കല്ക്കാച്ചി മീൻകറി എന്നുപറഞ്ഞൊരു മീൻ കറിയാണ് മീൻ വറുത്തിട്ട് ഒരു ഫിഷ് മസാല കൂട്ട് കറിക്കകത്തിട്ട് ഒന്നുകൂടെ ഹീറ്റ് ചെയ്യുന്നതാണ് അത് ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ ഓക്കെ ഓക്കെ ഓ ഇതിൻ്റെ കൂടെ കുടിക്കാൻ എന്തെങ്കിലും എക്സ്ട്രാ എടുക്കണോ മേടം ലൈം ജൂസ് മാത്രം മതിയോ ഓറഞ്ച് ഉണ്ട് ഷേക്സുണ്ട് അങ്ങനെത്തെ എന്തെങ്കിലും ഇന്ന് നമുക്ക് സ്റ്റാട്ടർ ആയിട്ട് സൂപ്പ് സ്റ്റാട്ടർ ആയിട്ട് സൂപ്പ് ഐറ്റംസും നമുക്ക് അവൈലബിൾ ആണ് മേടം ആ പ്ലെയിൻ മട്ടൻ സൂപ്പുണ്ട് അതുപോലെത്തന്നെ ഹോട്ട് ആൻഡ് സോർ മട്ടൻ സൂപ്പുണ്ട് അതേപോലെ പ്ലെയിൻ ചിക്കൻ സൂപ്പുണ്ട് ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പുണ്ട് അതുപോലെത്തന്നെ മഷ്റൂമിൻ്റെ ഈ വേരിയൻറ്റുണ്ട് വെജിറ്റബിൾൻ്റെ ഈ വേരിയൻറ്റുണ്ട് മഷ്റൂമിൻ്റെ ഹോട് ആൻഡ് പ്ലെയിൻ വേണോ അതോ ഹോട്ടൽ സോർ വേണോ

ഓക്കെ അത് കഴിഞ്ഞ് ഫുഡിന് ശേഷം ഐസ്ക്രീം അങ്ങനെ എന്തെങ്കിലും എടുക്കണോ മേഡം ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഓർഡർ ഞാൻ പ്ലേസ് ചെയ്തേക്കട്ടെ ഓക്കെ താങ്ക് യു താങ്ക് യു